ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്താണ് ഇനി നിങ്ങളുടെ ജീവിത ലക്ഷ്യം എൻ്റെ ജീവിതലക്ഷ്യം എന്ന് പറഞ്ഞ്കഴിഞ്ഞാൽ ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് പിന്നെ എൻ്റെ കുടുംബമാണ് എൻ്റെ ജീവിത ലക്ഷ്യം എനിക്ക് രണ്ടുമൂന്ന് മക്കളുണ്ട് മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക നല്ലൊരു ജോലി കൊടുക്കുക പിന്നെ അവരെ കല്യാണം കഴിപ്പിച്ച് മക്കളും മരുക്കളും പേരക്കുട്ടികളുടെ ഒക്കെ ഒപ്പം കുറച്ചുകാലം നമ്മള് നല്ലപോലെ ജീവിക്കുക അതൊക്കെയാണ് ഇപ്പം എൻ്റെ ആഗ്രഹവും ലക്ഷ്യവും